എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥ ഏതെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മഴയാണെന്ന് പറയും കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് എന്ന് പറയുന്നത് മൈഗ്രൈനും സിനസൈറ്റീസും ഒക്കെയുണ്ട് അതായത് കൂടുതല് വെയില് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് നല്ല ലൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാല് നല്ല തലവേദന വരും അപ്പോൾ വെയിലൊന്നും എനിക്ക് ഒരിക്കലും എൻ്റെ ശരീരത്തിനോട് മാച്ചാവാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മഴയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം അതുപോലെ മഴയത്ത് നല്ല നല്ല ക്ലൈമറ്റായിരിക്കും അന്തരീക്ഷോക്കെ ഭയങ്കര നല്ല രസമുള്ള ഒരു സമയായിരിക്കും അതുപോലെ തന്നെ മഴയത്ത് കളിക്കാൻ പറ്റും പിന്നതുപോലെ മഴയ മഴ നനഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് ഭൂമിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കുറച്ച് കൊറച്ച് ചെറിയ രീതിലുള്ള പുല്ലുകളൊക്കെ മുളച്ചിട്ടും അങ്ങനെയൊക്കെ കാണാനും നല്ല ഭംഗിയുള്ളതായിരിക്കും അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഋതു തന്നെയാണ് മഴ മഴക്കാലം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മഴക്കാലം നമ്മുടെ കേരളത്തില് മൺസൂൺ മൺസൂൺ ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ നല്ല രസമുള്ള പുലർച്ചെ കാണാനും അല്ലങ്കില് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ചുറ്റുപാടൊക്കെ കാണാൻ നല്ല രസമുള്ള സമയാണ് അതുപോലെ തന്നെ എനിക്ക് വിൻ്ററും ഇഷ്ട്ടമാണ് വിൻ്ററും ഒരു തണുത്ത കാലാവസ്ഥ എനിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ എനിക്ക് അതായിരിക്കും നല്ല ഇഷ്ട്ടമുള്ളത്